ഇപ്പോൾ എനിക്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബൈക്കിങ്ങിനോടൊക്കെ ഇൻട്രസ്റ്റ ഒക്കെ ഉണ്ട് ഫസ്റ്റ് ഒരു ബൈക്ക് വാങ്ങിക്കണം എന്നിട്ട് നേരെ ഫസ്റ്റ് ട്രിപ്പ്ടിക്കുക വെച്ച് കഴിഞ്ഞാൽ ലഡാക്കിലോട്ട് ആയിരിക്കും അത് ഒരു സോളോ ആരെയും കൂട്ടാണ്ട് ഒറ്റക്ക് സ്വന്തം കാര്യം നോക്കി നേരെ പിടിക്കലാട്ടോ ലഡാക്കലോട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനമായിട്ടുള്ള പ്രകൃതിയും എല്ലാം കണ്ടിരുന്ന ഒറ്റക്ക് രസിച്ചിട്ട് തിരിച്ചുള്ള വരവും കാര്യങ്ങളൊക്കെ വേരി വെരി ബ്യൂട്ടിഫുൾ ആയി ബ്യൂട്ടിഫുൾ ആയിരിക്കും പക്ഷേ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരുമാതിരിയാണ് സിറ്റുവേഷൻ എല്ലാ ബോയ്സും ഏകദേശം ഒരേ പോലെ ആയിരിക്കണം എന്നില്ലല്ലോ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വന്തം പുറത്ത് പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു ബൈക്ക് എടുക്കുക ഒരു റൈഡ് പോകുക ഇപ്പം നൈറ്റ് റൈഡ് ആണ് നൈറ്റ് റൈഡ് ഇപ്പം കഴിഞ്ഞ ഞാൻ എൻ്റെ ഒരു താല്പര്യ പ്രകാരം ഞാൻ ലഡാക്ക് വരെ ഒന്ന് പോകാമെന്ന് സെറ്റ് ആകാമെന്ന് അവിടെ അടിച്ച് പൊളിച്ചൊരു ഒരു മാസമൊക്കെ നിന്ന് തിരിച്ച് അതേപോലെ തന്നെ ഒറ്റക്ക് സോള അടിച്ച് വരുന്ന് ആ ബാക്കി പിന്നെ ഇവിടൊന്നുമല്ല ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ എന്തെങ്കിലും ഡീൽ ചെയ്യാമല്ലോ അപ്പം പോകാം അടിച്ച് പൊളിക്കാം അവിടുത്തെ എല്ലാരെടുത്തും സംസാരിക്കുക എൻജോയ് ചെയ്യുക മാക്സിമം എൻജോയ് ചെയ്യുക ഒറ്റ ലൈഫ് അത് എൻജോയ് ചെയ്ത് തന്നെ തീർക്കണം അത്രയെ ഉള്ളൂ ഇപ്പം നമുക്ക് ഉള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ